ആ ചേട്ടാ പറയൂ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അപ്പോൾ ടൗണിൽനിന്ന് എത്ര ഒരുപാട് അതായത് ഒരുപാട് ഉൾ ഏരിയയിലേക്ക് വേണോ ആ അതായത് ഒരുപാട് ഉൾ പോയിക്കഴിഞ്ഞാൽ നമുക്ക് റേഞ്ചിൻ്റ പ്രശ്നം ഒക്കെ വരും അപ്പം ഈ ഇപ്പം പാലക്കാട് പറയുമ്പം നമുക്ക് ഒലവക്കോട് ഉണ്ട് പിന്നെ പുതുപ്പരിയാരം ഉണ്ട് അതുപോലെ ഇപ്പം ഇങ്ങോട്ട് കഞ്ചിക്കോട് ആ ഭാഗത്ത് ഏത് ഭാഗത്തേക്കാണ് വേണ്ടത് ഒറ്റപ്പാലം ഭാഗത്തേക്ക് വേണോ കഞ്ചിക്കോട് ഏരിയയെന്നു പറയുമ്പം ഇൻ്റസ്ട്രിയൽ ഏരിയ ആണ് അപ്പം അവിടെ കുറച്ച് പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ കൂടുതൽ ആയിരിക്കും കുറച്ചുംകൂടി ഇങ്ങോട്ട് വരണ ആയിരിക്കും കുറച്ചുംകൂടി ബെറ്റർ അത് നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒറ്റപ്പാലം ഭാഗത്തേക്ക് ആയാലും കുഴപ്പം ഇല്ലല്ലൊ ആ ഓക്കെ ഇപ്പം വീട് എങ്ങനത്തെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടു നില വേണോ എങ്ങനെയാണ് വേണ്ടത് രണ്ടു നില അല്ലെ ആ

സിറ്റ് ഔട്ട് ആണോ അതോ ഹോൾ ആണോ ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ

മുകളിൽ രണ്ട് റൂം മനസ്സിലായി മനസ്സിലായി മനസ്സിലായി മനസ്സിലായി മനസ്സിലായി ഓക്കെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ആ അപ്പം ആ കറക്ട് എക്സാക്ട് അല്ലെങ്കിൽ അതുപോല ഏകദേശം വരുന്നുണ്ട് പക്ഷെ ആയിരത്തി ഇരുന്നൂറ് അല്ല ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ആ വീട് ചേട്ടനെത്രയാണ് ഇപ്പോൾ ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത് ആ ഇത് ഇപ്പം അത്രയൊന്നും ഇല്ല ഇത് ഇപ്പം ആ അതായത് ആ ഒരു അഞ്ച് കൊല്ലത്തെ പഴക്കം വന്നിട്ട് ഉണ്ടാവും ഇപ്പം ആ വീട് അഞ്ച് അല്ല നാല് കൊല്ലത്തെ എക്സാക്ട് നാല് കൊല്ലം ആ വച്ചിട്ടുണ്ട് ആരും ഉപയോഗിച്ചിട്ട് ഒന്നും ഇല്ല വീട് ഒന്ന് രണ്ടോ ഒന്ന് മാക്സിമം ഒര് ആറ് മാസം ഒക്കെ അവര് താമസിച്ചിട്ടുളൂ ആ വീട്ടിൽ അല്ല അല്ല അവർ ഇവിടെ നിന്ന് താമസം മാറി പോയതാണ് കൊയമ്പത്തൂരിലേക്ക് പോയതാണ് ഷിഫ്റ്റ് ആയതാണ് അവർ ഇവിടെ അവിടെ ആയിരുന്നു അവർ സെറ്റിൽഡ് പിന്നെ അവിടേക്ക് ജോലി കിട്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പം അവർ ഇങ്ങോട്ട് രണ്ടാൾ ഇങ്ങോട്ട് വന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ആയിരുന്നു പിന്നെ അവർക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയി തിരിച്ചു പോയി അവർ അപ്പോൾ അവർ അത് അവർ ഇപ്പം ഒരു തേർട്ടി ലാക്ക്സിൽ പറയണുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുംകൂടി കമ്മിയാക്കാൻ നോക്കാം അതിൽ ഒരു ഇരുപത്തെട്ടോ ഇരുപത്തി ഏഴിന് ഒക്കെ മുറിക്കാൻ നോക്കാം പഴക്കം ആ വീട് പഴക്കം ആ കുറച്ച് മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരും കാരണം ആ രണ്ടു കൊല്ലം അടച്ച് കിടക്കണതുകൊണ്ട് കുറച്ച് മെയിൻ്റനൻസിൻ്റ ആവശ്യം വരും എന്തായാലും ആ അതായത് ആ പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്നു മാറ്റി സ്വിച്ചും കാര്യങ്ങളൊക്ക ഒന്നു സെറ്റ് ചെയ്ത് അത്രയൊക്കെത്തന്നെ ചെറിയ ചെറിയ മെയിൻ്റനൻസിൻ്റ ആവശ്യം വരും ഉണ്ട് ഉണ്ട് അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് മാവും മാവ് ഉണ്ട് പ്ലാവ് ഇല്ല അതുകൊണ്ട് പിന്നെ കുറച്ച് പിന്നെ ആ അതായത് അവർ അത്ര വില ഒന്നും നോക്കേണ്ട അതിൽ അത്യാവശ്യം തേക്കും കാര്യങ്ങളും മരങ്ങളൊക്കെ ഉള്ളതാണ് അവർ മൊത്തം ഈ ഇരുപത്തേഴ് മുപ്പതെന്നു പറയണയൊക്കതന്നെ നമുക്ക് വലിയ ലാഭമാണ് കാരണം അത് കുറച്ച് മരങ്ങളും മരങ്ങളൊക്കെ മുറിച്ച് വിറ്റാൽ തന്നെ അത്യാവശ്യം പൈസ കിട്ടും അപ്പോൾ അത് നോക്കേണ്ട നമുക്ക് വീട് വേണമെങ്കിൽ വേറെ ഒരെണ്ണം രണ്ട് വീട് വയ്ക്കണ സ്ഥലം അതിൻ്റ ഉള്ളിൽ ഉണ്ട് നിങ്ങൾക്ക് അത് പോവുമ്പം അത് സെറ്റ് ആയില്ലയെന്ന് പറഞ്ഞു കയിഞ്ഞാൽ അത് പൊളിച്ച് വേറ വീട് വയ്ക്കാനുള്ള പൈസ അതിൽ നിന്ന് കിട്ടും ഓക്കെ ഞാൻ ആ കുറച്ച് അതായത് അതിൻ്റെ വീട്ടിൻ്റ ബാക്കിലേക്ക് ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു മിനി കാടെന്നുതന്നെ പറയാം അത്യാവശ്യം നല്ല മരം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല മരങ്ങളും സൈസൊക്ക ഉള്ള ഇതാണ് ആ അപ്പം നിങ്ങൾ എന്നാൽ കാണാൻ വരുന്നതെന്നു വച്ചാൽ നമുക്ക് ഒന്നു കണ്ടിട്ട് പിന്ന നേരെ അവരുടെ അടുത്തേക്ക് പോകണം അത് ഇങ്ങോട്ട് വരില്ല നമുക്ക് നേരെ കോയമ്പത്തൂർ പോയിട്ട് അവരെ അതിൽ കയറ്റി രജിസ്റ്റർ ചെയ്യാം നിങ്ങൾ ഒന്നു വന്ന് കണ്ട് ഓക്കെ പറയണ അത് അതിൻ്റെ പിറ്റെ ദിവസം തന്നെ പോവാം ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ശരി